നമ്മൾ മൃഗങ്ങളെ മൃഗങ്ങളെ വാങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ ഒരു പശുവിനെയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഒരു ചെറിയ കിടാവിനെ നമ്മൾ വാങ്ങിക്കുന്നു വാങ്ങിച്ചു അത് ഒരു ഒരു ഒരു പ്രായമാകുമ്പം നമ്മളതിനെ അതിനെ കുത്തിവെപ്പിക്കുന്നു കുത്തിവെപ്പിച്ചതിന്റെ ചെന പിടിച്ചു അത് പ്രസവിച്ചു അതിന്റെ പാല് പാല് മറ്റു പാലുല്പ്പന്നങ്ങൾ പാല് നമ്മളെ വീടുകളിൽ ആവശ്യവുള്ളവര്ക്ക് കൊടുക്കുന്നു ഇല്ലെങ്കിലിപ്പം മില്മ പോലുള്ള സംരംഭങ്ങളുണ്ട് അപ്പം അവിടെയൊക്കെ നമ്മൾ കൊടുക്കുന്നു അതിപ്പിന്നെ ഇപ്പം അതില്നിന്നൊക്കെ നല്ല ആദായം കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ഒരു ഒരു ലാഭം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് കുറച്ച് കഷ്ടപ്പാടൊക്കെ ആണെന്ന് വരികിലും അതെക്കെ കിട്ടുകയെന്നത് നല്ല ഇതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരിതാണ് പോത്ത് കൃഷിയെന്ന് പറയുന്നത് ആ പോത്തിനെയൊക്കെ ചെറിയ കിടാക്കളായിരിക്കുമ്പം നമ്മൾ വാങ്ങിച്ചിട്ട് അതിനെ ഇപ്പം ഈ പശുക്കളെപ്പോലെയുള്ള കൂടുതൽ സുരക്ഷിതത്വം ഒന്നും ഈ പോത്ത് കുട്ടികള്ക്കൊന്നും അതിന്റെ ആവശ്യമില്ല നമ്മളിപ്പം പറമ്പിലൊക്കെ ഒരുപാട് ഇപ്പം നമ്മൾ ചുറ്റിനും കണ്ട് വരുന്നത് നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് മഴയൊക്കെ ആവുമ്പോഴത്തേനും റബറിനകത്തും പറമ്പിലും എല്ലാം ഭയങ്കരമായിട്ടുള്ള കാട് ഉണ്ട് അപ്പം ഈ കാട് ഇന്നത്തെക്കാലത്ത് നമ്മൾ പണിക്കാരെ നിര്ത്തി ഈ തെളിപ്പിക്കുകയെന്ന് പറയുന്നത് ആയിരം രൂപ കൊടുത്ത് തെളിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ദുഷ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഇന്ന് കൂടുതലും ആള്ക്കാർ ചെയ്യുന്നത് ഒരു പോത്തും കിടാവിനെ വാങ്ങിച്ചിടും അത് പറമ്പ് മൊത്തം തെളിച്ചോളും അപ്പം അതിന് വലിയ സംരക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല ചെറിയ ഒരു റ്റാര്പ്പായ അതൊന്ന് കെട്ടിയിട്ട് പിന്നെ ഇച്ചിരി കുടിയോ വെള്ളമോ ഇച്ചിരി പുളിയരിയൊക്കെ വേവിച്ച് കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഈ പറമ്പിലൊക്കെ മാറ്റിക്കെട്ടിക്കഴിഞ്ഞാൽ പെട്ടന്ന് അത് വളരും വളര്ന്ന് കഴിഞ്ഞാല് നമ്മളതിനെ അറുക്കാനായിട്ട് കശാപ്പുശാല ആര്ക്കെങ്കിലും ആളുകള്ക്ക് കൊടുക്കും അപ്പം നല്ല ലാഭമുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ മുടക്കുമുതൽ വരുന്നില്ല ബാക്കി കാര്യങ്ങളിൽ അതിന്റെ വിൽക്കുന്നുണ്ടെങ്കിൽ നല്ല പൈസ കിട്ടുന്നുണ്ട് പിന്നെ പിന്നെയവരത് അറുത്ത് ഈ അറവുശാലകളാണെങ്കിലും വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നമുക്ക് ഇത് മേടിക്കാന് ബുദ്ധിമുട്ടാണ് അപ്പം അവരത് ബ്ലീച്ചിംഗ് പൗഡറ് പോലുള്ള സാധനങ്ങൾ ഒക്കെ ഇട്ട് അവിടം എല്ലാം ക്ലീന് ചെയ്ത് നല്ല രീതിയില്ത്തന്നെ അത് ഇന്ന് ചെയ്യുന്നു കശാപ്പ് ചെയ്യാനുള്ള ആളുകളൊക്കെ കൃത്യമായിട്ടുണ്ട് അതും അതുപോലെത്തന്നെ ആട്ടും കുട്ടികൾ ആട്ടിന്കുട്ടികളെയൊക്കെ നമ്മൾ വാങ്ങിച്ച് മുട്ടനാടാണെങ്കിൽ ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ അതിനെ അറുക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ആ മാംസങ്ങളൊക്കെ ഇപ്പം ഇന്ന് നമ്മുടെ കുടിയടപ്പ് പോലുള്ള സ്ഥലങ്ങളിലിത് ചെയ്യുമ്പം കുറേക്കൂടി വൃത്തി ഉള്ള കാര്യങ്ങളാണ് കിട്ടുന്നത് പിന്നെ പ്രോംന്ന് നമ്മൾ വിദേശരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു മാംസങ്ങളൊക്കെ അത് നന്നായിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ച് നമ്മളതിനെ ഒക്കെ അങ്ങനെ ചെയ്യാന് ചെയ്യുന്നുണ്ട്